കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നൂറ്റാണ്ട് മുമ്പ് മലയാളിയുടെ പ്രധാന ജോലി തന്നെയായിരുന്നു കൃഷി പക്ഷേ ഈ കാലത്ത് അതായത് ഈ ഒരു തലമുറയിൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് കൃഷി കൃഷി ചെയ്യുന്നതിന് ഒരു താൽപര്യമില്ല ആർക്കും ഒരു എന്താ പറയുക കൃഷി കൃഷ് അതായത് മണ്ണ് ചെളി ഇതൊക്കെ വൃത്തികെട്ട സാധനങ്ങൾ ആണെന്നാണ് ഇപ്പോൾ ഉള്ള മുതിർന്നവർ അവരുടെ പിള്ളേരെ ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതായത് പക്ഷെ അതിപ്പോൾ കൃഷി നമ്മൾ ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നാണ് ഇങ്ങോട്ടേക്കുള്ള അരിയും പച്ചക്കറിയും കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നത് പക്ഷെ ഇത് നമ്മുടെ ഇവിടെ ഇതാക്കുവെന്ന് പറയുമ്പം തന്നെ എന്താ പറയുക ആർക്കും ഒരു ഇത് എന്താ പറയുക ഒരു പൈസ കിട്ടാത്തൊരു ജോലി എന്നുള്ള ഇത് ഇതിലാണ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ അതിൻ്റെ ഒപ്പം വേറെ കുറച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് മൺപാത്രമൊക്കെ നിർമ്മിക്കുക പിന്നെ ഈ അതായത് ഈ ചകിരി ചകിരി വെച്ചിട്ട് കയറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയും ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ കൂടെ കൃഷിയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ജീവിക്കാനുള്ളൊരു വരുമാനവായിട്ട് തന്നെ ഇത് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും